ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായി കണക്കാക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണുള്ളത് കാരണം നമ്മുടെ ഈ കാലഘട്ടത്തില് ഫോട്ടോഗ്രാഫി എന്നു പറയുന്ന ഒരു വളരെ മികച്ചൊരു പ്രൊഫഷനാണ് കാരണം ഒരുപാട് ആളുകൾ ഈ ഫോട്ടോഗ്രാഫി ഒരു വരുമാനത്തിന്റെ മാര്ഗ്ഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ വരുമാനം മാത്രമല്ല ഒരുപാട് കഴിവ് നമ്മുടെ കഴിവ് തെളിയിക്കാനും ഫോട്ടോഗ്രാഫിയിൽ നമുക്കുള്ള കഴിവ് തെളിയിക്കാനുള്ളൊരു മാര്ഗ്ഗം കൂടിയാണ് ഈ ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ വിവാഹങ്ങൾ അതായത് ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും പുതിയ ടെക്നോളജിയെല്ലാം ഉപയോഗിച്ചിട്ട് മികച്ച രീതിയിൽ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി വിവാഹങ്ങളിൽ ഉപയോഗിക്കാന് കഴിയും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇപ്പോൾ ടെലി കേം ട്രാണുകൾ ഉപയോഗിച്ചുള്ള വിഡീയോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികളെല്ലാം നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇക്കാലത്ത് വിവാഹങ്ങളിൽ ഇപ്പോൾ പുതിയതായിട്ട് സേവ് ദ ഡേറ്റ് ഫോട്ടോഗ്രാഫി പിന്നെന്താണ് പറയുക എല്ലാറ്റിനും ഒരു വിഡീയോസ് നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെയൊരു മികച്ചൊരു പ്രൊഫഷന് തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് കാരണം നമ്മൾ ഇപ്പം എന്തും ഫംഗ്ഷന് ആണെങ്കിലും എന്ത് ചെറിയ പരിപാടിയാണെങ്കിലും അതിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫിയും വിഡീയോഗ്രാഫിയും എല്ലാം ചെയ്യുന്നുണ്ട് അവ വളരെ മികച്ചതായിട്ട് ചെയ്യുക എന്നതായിരിക്കും ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം